ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഗൂഗിൾ മാപ്പുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആപ്പിൾ മാപ്പും ഉപയോഗിച്ചിട്ടുണ്ട് ആപ്പിൾ മാപ്പിലോട്ട് വരുവാണെങ്കിൽ പെർഫെക്റ്റ് ആൻഡ് ക്ലിയർ ആണ് ഗൂഗിൾ മാപ്പിലോട്ട് വരികയാണെങ്കിലും ആവറേജ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് അത്യാവശ്യം ആവറേജ് ആൻഡ് ക്ലിയർ ബിക്കോസ് ആപ്പിളും ഗൂഗിൾ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ട് അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളു പിന്നെ ആപ്പിൾ മാപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റീവ് ആൻഡ് ക്രൂഷൽ ആൻഡ് ആക്കുറസി ഗൂഗിൾ മാപ്പിലോട്ട് ഒത്തിരി കേസുകള് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെ ഒരു അപകടം പറ്റി ഗൂഗിൾ മാപ്പ് നോക്കി വഴി ഓടിച്ചു കാട്ടിൽ ചെന്നു പെട്ടവർ ഉണ്ട് പിന്നെ പാലത്തിൻ്റെ അടിയില് പാലത്തിൽ നിന്ന് മണ്ണിൽ നിന്ന് താഴോട്ട് വീണവർ ഉണ്ട് അങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ പ്രശ്നങ്ങളും ഉണ്ടായവർ ഉണ്ട് പക്ഷെ ഞാൻ ഉപയോഗിച്ചു അത്രയും എനിക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നവും എനിക്ക് ഇതുവരെ ഗൂഗിള് മാപ്പിൽ നിന്നും വന്നിട്ടില്ല ഗൂഗിള് മാപ്പിൽ നിന്നും വന്നിട്ടില്ല ആപ്പിൾ മാപ്പിൽ നിന്നും വന്നിട്ടില്ല കാരണം ഞാന് അത്യാവശ്യം സഞ്ചരിക്കും കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും വരും അത്യാവശ്യം സഞ്ചരിക്കും എങ്കിലും ഗൂഗിൾ മാപ്പിൽ നിന്നും എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ഉള്ളത് പിന്നെ പിന്നെ പറയാൻ ഉള്ളതെന്ന് പറയുമ്പം ഗൂഗിള് മാപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവ എത്രത്തോളം കൃത്യമാണോ ചോദിച്ചാൽ എൻ്റെ ഒരു ഇത് വച്ചു വളരെ കൃത്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ വളരെ കൃത്യവായിട്ടുള്ളത് തന്നെയാണ് ഗൂഗിൾ മാപ്പ് പ്രവർത്തിക്കുന്നത് കാരണം പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് ഒത്തിരി വാർത്തകൾ കേൾക്കുന്നത് പോലെ ചില കുഴപ്പങ്ങളൊക്കെ വരും അത് സ്വാഭാവികം ആണ് കാരണം ഈ ലോകത്തുള്ള എല്ലാ മുക്കും മൂലയും ഗൂഗിൾ മാപ്പിന് തെരഞ്ഞെടുത്ത് കൊടുക്കണം കാരണം അത്രയും ടെക്നോളജി ആണെങ്കിൽ തന്നെയും ഏരിയ ഐഡന്റിഫൈ ചെയ്തു ഐഡന്റിഫൈ ചെയ്തു നമ്മൾ ഓരോ ദിവസവും ഓരോ വഴികള് ഉണ്ടാവുന്നത് പോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ അത് ഐഡന്റിഫൈ ചെയ്തു വരാൻ ഇത്തിരി താമസം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ